ആ ഹാ ഞാൻ എന്തിനാണ് വിളിച്ചത് എന്നറിയാവോ എനിക്ക് അടുത്ത ആഴ്ച്ച എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഇരുന്നൂറ് ബോണ്ട വേണം അപ്പം ബോണ്ടയോ എന്തെങ്കിലൊക്കെ പലഹാരങ്ങൾ വേണം എന്തെങ്കിലും ഒക്കെ ചായയും കടിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അവിടെ എന്തൊക്കെ ടൈപ്പ് ചായ പലഹാരങ്ങളാണ് ഉള്ളതെന്നൊന്ന് ലിസ്റ്റ് പറയാമോ

ആ ഹാ ഹാ ഹാ അന്ന് ആണോ അപ്പം ഇതിൻ്റെയൊക്ക റേറ്റെങ്ങനെയാണ് ഇന്നൊരു കാര്യം ചെയ്യാം ഈ മ് ബോണ്ട ഒരു പത്ത് എല്ലാ ഒരു പത്തെണ്ണം വീതം തന്നേക്കണം മ് ആ അപ്പം എന്നാൽ ഇന്ന് മൊത്തം ഇരുന്നൂറെണ്ണം ഇരുന്നൂറ് പേരെയാണ് ക്ഷണിക്കുന്നത് അപ്പം ഇത് ഇത് ഇര്ന്നൂറ് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വ്യത്യസ്ഥമായ പലഹാരങ്ങൾ ആണല്ലോ ഇഷ്ടം അത്കൊണ്ട് അവിടെ മ് ആ ചുക്കപ്പം പോലുള്ള ഐറ്റംസും കിട്ടുമല്ലോ അല്ലേ ചുക്കപ്പം ഓ അങ്ങനെ ഈ ക്രീം കേക്കൊക്കേന്ന് പറയുന്നത് ആരും ഈയിടെ ആയിട്ട് വലിയ നിലവാരം പുലർത്തുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം അതൊക്കെ ഒഴിവാക്കാൻ ഈ ചായക്കട പലഹാരങ്ങളാണ് മ് ആളുകൾക്ക് ആവശ്യം അതായത് അവിടെയുള്ളവർക്ക് എല്ലാതരം ക്രീം കേക്ക് കിട്ടാനായിട്ടുള്ള സൗകരര്യം ഉണ്ട് അത്കൊണ്ടത് വേണ്ട അപ്പം ഈ മാർച്ച് മാസം അവസാനം അവസാനത്തെ ആഴ്ച്ച കറക്റ്റ് ഡേറ്റ് ഞാൻ പറയാം ഒരു ഇരുപത്തി അഞ്ചാം തീയതിയായിട്ട് വരും മ് ഓ വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിയാകുമ്പോഴ്ത്തേനും ഈ പ്രാർത്ഥനയോട് കൂടി വെക്കാനായിട്ടാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പം ആ ഒരു നല്ല കാര്യം നടക്കുമ്പം പ്രാർത്ഥനയോടു കൂടി വേണമല്ലോ അപ്പം കേക്ക് കട്ട് ചെയ്യാനായിട്ട് അല്ലാതെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടത് കൂടാതെ ഈ ചായക്കട ഐറ്റംസ് ഇത് കൂട്ട് പത്തെണ്ണം വീതം എല്ലാ പത്ത് പതിനഞ്ച് വീതം എല്ലാ സാധനങ്ങൾ എങ്ങനെ വന്നാലും കൃത്യം ഒരു ഇരുപത് ഇരുന്നൂറ് എണ്ണം വേണം മ് ഇരുന്നൂറ് മ് അപ്പം താങ്കൾ ഈ സാധനം കൊണ്ട് തരുമോ മ് ഇനി അതല്ലെങ്കിൽ മ് ഇതിന് അപ്പം ഇതിനോടകം അങ്ങ് സംഭവം റെഡിയാവൂലോല്ലേ നാല് മണിക്ക് നാല് മണിക്ക് മ് ഈ സാധനം ചൂടോടെ വേണം അപ്പം അത്കൊണ്ട് അപ്പത്തന്നെ പാക്ക് ചെയ്ത് അടുക്കിയടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ചൂടാറത്തില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ ആ മ് മ് നിം മധുരം കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ പലർക്കും നൊയമ്പായോണ്ട് ഈ മധുരം ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അത്കൊണ്ട് മധുരം ഇല്ലാത്ത ഐറ്റംസ് കൂട്തലെണ്ണം വെക്കുക മധുരം ഉള്ള സാധനങ്ങൾക്ക് എണ്ണം കുറക്കുക അങ്ങനെ അങ്ങനെ വന്നാൽ ഒരു ഇരുന്നൂറെണ്ണം മ് ഓക്കെ അപ്പം ചുട്ട് ചായേം കൂടി കൊടുത്ത് കഴിയുമ്പം കൊടുക്കാൻ ചായയും റെഡിയാക്കി തരുമല്ലോ അല്ലേ ഇരുന്നൂറ് ചായ മ് ഇരുന്നൂറ് ചായയും ആ ബ്രൂ കോഫിയായാലും കുഴപ്പമില്ല ബ്രൂ കോഫി ആയിരിക്കും ഒന്ന് കൂടി മെച്ചം ബ്രൂ കോഫി മതി ആ ആ മ് മ് മ് അത് ശരിയാണ് ഈ ചായയും കടി അങ്ങ് ശരിയാണ് അപ്പം ഡിസ്പോസിബ്ളാ ഗ്ലാസ് ആ ടിഷ്യു പേപ്പറും കൂടെ ഒരു പേക്കറ്റെടുത്തോളണേ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പോസിബ് ഗ്ലാസ് ഒന്നേത് ചായ കൊടുക്കാമല്ലോ പിന്നെ കുഞ്ഞ് പ്ലേറ്റില്ലേ റൗണ്ടിൽ ഷേപ്പിലുള്ള ഓരോ കടി വെക്കാവുന്ന ആ സൈസിലുള്ള ആ ടൈപ്പ് പാത്രങ്ങൾ ഒരു ഇരുന്നൂറെണ്ണം മ് ചെറിയ പ്ലേറ്റിര്ന്നൂറെണ്ണം കപ്പ് ഒരു ഇരുന്നൂറെണ്ണം പിന്നെ ഈ ബോണ്ട ബോണ്ട എന്തായാലും വേണം ബോണ്ട ഒരു എണ്ണത്തിൽ കൂടുതലായാലും കുഴപ്പമില്ല ബോണ്ട ഒരു ഇരുപത്തി അഞ്ചെണ്ണം എങ്കിലും വേണം മ് പിന്നെ ബാക്കി ഉള്ളിവട എണ്ണം കുറച്ചാലും കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഇന്ന് എന്ത് ചുക്കപ്പം ഞാൻ ചുക്കപ്പം ചുക്കപ്പത്തിന് കുറച്ച് പേർക്ക് നൊയമ്പ് ഉള്ളവർക്ക് ഒക്കെ ചുക്കപ്പം കഴിക്കാമല്ലോ മധുരം ഇല്ലല്ലോ പഞ്ചസാര ചേർക്കുന്നില്ല പഞ്ചസാര നൊയമ്പ് ഉള്ളവർക്ക് മ് അപ്പം അങ്ങനെ അപ്പം അമല ജെഗ്ഷൻൽ എത്തിക്കണം അവിടൊരു വലിയ വീടുണ്ട് ആ സൈഡിൽ ഓ മ് അവിടെ കറക്റ്റായിട്ട് മ് സമയത്ത് വിളിച്ചേക്കാം അവിടെ എത്തി എത്തിക്കുമല്ലോ അല്ലേ ആ ആ ലൊക്കേഷനിട്ടേക്കാം ലൊക്കേഷനിട്ടേക്കാം അതിന് കൂടി ആം ആ ശരിയാണ് സ്റ്റാഫ്കളാരേലും ഉണ്ടെങ്കിൽ അവിടെത്തെത് എത്തിക്കാം ആ ഉറപ്പിച്ചേക്ക് ഉറപ്പിച്ച് അപ്പം കറക്റ്റ് ഓ ഇരൂപത്തി അഞ്ചാം തീയതി നാല് മണിക്ക് ഒക്കെ